ആ അതെ പറഞ്ഞോളു നമുക്ക് ഇപ്പോൾ ഫോർ പെർസെൻ്റെജാണ് ഇൻട്രസ്റ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് ഗോൾഡുണ്ടോ പണയം വെക്കാൻ നാല് പവനല്ലെ നമുക്ക് പവന് മു മുപ്പത്തി ഏഴ് ഇരുന്നൂറ് വെച്ചാണ് നമ്മള് കൊടുക്കുന്നത് ഫൈവ് യീയർ വരെ നമ്മള് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ താല്പര്യം ഉണ്ടൊ നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് കൂടുതല് ഇപ്പോൾ എത്ര വരുന്നുണ്ട് സ്ഥലത്തിന് ഓക്കെ നമുക്ക് അതിൻ്റെ നികുതി ചീട്ട് കിട്ടുവാണെങ്കിൽ ഏകദേശം എന്തോരം കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം നമുക്ക് സ്ഥലത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എല്ലാം അറിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടന്ന് മാർക്കറ്റ് റേറ്റിന് അനുസരിച്ച് നമ്മള് റേറ്റ് പറയൂ എത്രയാണ് നമുക്ക് ഇപ്പോൾ സ്ഥലത്തിൻ്റെ നികുതിച്ചീട്ട് നിങ്ങളുടെ പ്രൂഫ് എന്തെങ്കിലും മതി ഇപ്പോൾ ഐ ഡി കാർഡ് പാൻ കാർഡ് അങ്ങനത്തെ പ്രൂഫുകളൊക്കെ ആണ് നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ അങ്ങനെ എന്തേലും ആണോ ഫാം തുടങ്ങാൻ ആണല്ലെ ഓക്കെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ലോണ് അല്ലാണ്ട് വേണമെങ്കിൽ നമ്മള് തരുന്നുണ്ട് അതിനും പ്രൂഫായിട്ടിപ്പോൾ നിങ്ങളുടെ സ്ഥലമോ ഗോൾഡോ അങ്ങനെ എന്തേലും പ്രൂഫ് വെച്ചാൽ മതി നിങ്ങളിവിടെ എവിടെയാണ് സ്ഥലം മാനന്തവാടിയാണോ ആ ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എപ്പത്തേക്കാണ് എത്താൻ പറ്റുക എന്ന് വെച്ചാൽ ബാങ്കിലേക്ക് വരുമ്പോൾ നമുക്കതിൻ്റെ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച വൺ വീക്ക് കൊണ്ടുതന്നെ നമുക്ക് ലോൺ തരാൻ പറ്റും ആ വേഗം തന്നെ പാസാകും ആ പിന്നേ ഗ്യാരൻറ്റർൻ്റെ ഒന്നും ആവശ്യം വരില്ല സർ സ്ഥലമോ അങ്ങനെ എന്തേലും വെക്കുവാണെങ്കിൽ നമുക്ക് ഗ്യാരൻറ്റർ വേണ്ട സ്ഥലമോ ഗോൾഡോ എന്തേലും വെക്കുവാണേൽ അല്ലാണ്ട് എടക്കുവാണെങ്കിൽ നമുക്ക് ഗ്യാരൻറ്റർ വേണ്ടി വരും അതായത് കുടുംബത്തിലുള്ള ആള് പറ്റില്ല പുറമെ ഉള്ള ആരേലും ഗ്യാരൻറ്റർ ആയിട്ട് നിൽക്കേണ്ടി വരും ആ എന്താണ് നിങ്ങള് ഗോൾഡ് വെച്ചിട്ടാണോ ചെയ്യുന്നത് അതോ സ്ഥലമാണോ ഗോൾഡ് വെച്ചിട്ട് ചെയ്യാനാണോ ഗോൾഡ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലൊ പവന് ഇപ്പോൾ മുപ്പത്തി ഏഴ് ഇരുന്നൂറ് വെച്ചാണ് നമുക്ക് പവന് വരുന്നത് അപ്പോൾ അതിന് അനുസരിച്ചേ കിട്ടുകയുള്ളു നിങ്ങൾ വലിയ ഒരു സംരംഭം ഒക്കെ ആണ് ആരംഭിക്കാൻ തുടങ്ങുന്നതെങ്കില് അതുകൊണ്ട് കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല ആ അപ്പോൾ നിങ്ങള് അതിന് അനുസരിച്ച് എന്താന്ന് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് വീട്ടുകാരായിട്ട് സംസാരിച്ച് രണ്ട് ലക്ഷം രൂപ വേണം അല്ലെ അപ്പോൾ നിങ്ങള് ഈ പറഞ്ഞത് പോലെ സ്ഥലത്തിൻ്റെ എന്തേലും വെച്ചിട്ട് ചെയ്യുന്നത് ആയിരിക്കും നിങ്ങൾക്ക് ബെറ്ററ് ആ അതിൻ്റെ നികുതി ചീട്ടും ആധാരത്തിൻ്റെ ഒരു കോപിയും പിന്നെ നിങ്ങളുടെ എന്തേലും പ്രൂഫായിട്ട് വന്നാൽ മതി നമുക്ക് ഈ ഗ്യാരൻറ്റർൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല നമുക്ക് സ്ഥലം വെച്ചിട്ടാണെങ്കിൽ ഒരു ഏഴ് കൊല്ലം വരെ മാക്സിമം നമുക്ക് ലോണ് ചെയ്ത് തരാൻ പറ്റും ഇൻട്രെസ്റ്റ് ഫോർ പെർസെൻറ്റെജ് തന്നെയാണ് വരുന്നത് നാല് ശതമാനം തൊട്ട് എന്തേലും സംശയമുണ്ടെങ്കിൽ നിങ്ങള് ഡയറക്റ്റ് ബാങ്കിലേക്ക് വന്നിട്ട് സംസാരിച്ചാൽ മതി ആ ഓക്കെ എന്നാൽ ശരി ആയിക്കോട്ടെ